ബിസിനസുപരമായി ഒരു കാര്യങ്ങളും ഒരു വാർത്താ റിപ്പോർട്ട് ചാനലുകളും ഇതുവരെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബിസിനസ്സ് ഒരു മുഖ്യ ഒരു നമ്മുടെ ഭാരതം ഉയരരേണ്ടിയ ഒരു മുഖ്യ കാരണം കാര്യമാണ് ബിസിനസ്സ് ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എന്ന് തന്നെ പറയാം ഇരുപത്തിനാല് മണിക്കൂറിൽ അര മണിക്കൂർ പോലും ബിസിനസ്നു വേണ്ടി ഒരു ന്യൂസ് നമുക്കില്ല ബിസിനസ് ന്യൂസ് ഒക്കെ മലയാളത്തിൽ ഇതുവരെ ആയിട്ടുമില്ല ഇത് പുതിയതായി തുടങ്ങേണ്ടിയത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസിലാക്കുന്നത് കാരണം നിങ്ങളിപ്പം അച്ചാറിനെക്കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞു അതുപോലെ എത്രയോ ബിസിനസുകൾ കയറ്റി അത് അയക്കാൻ പറ്റുന്ന രീതിയിലും മാർക്കറ്റിങ് രംഗത്തും നമ്മുടെ പുതിയ തലമുറയെ പ്രയോജനപ്പെടുക്കത്തക്ക വിധം ഈ സംരംഭം വളരെ വിജയി ബിസിനസ് വാർത്തകൾ വിജയിക്കേണ്ടിയത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്

രാഷ്ട്രീയക്കാരും നമ്മുടെ നിയമപാലകരും ഇതിന് മുന്നിട്ട് ഇറങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെത്തന്നെ പുതിയ തലമുറക്ക് എവിടുന്ന് ലോൺ കിട്ടും എങ്ങനെ ലോൺ കിട്ടും അതിൻ്റെ പലിശകളെ അതിൻ്റെ ഡിസ്കൗണ്ടുകളെ വനിതകൾക്കു വേണ്ടി പ്രത്യേകമുള്ള ലോണുകളെ എസ് സി എസ് ടിക്കുള്ള ലോണുകളെ എന്നിവയൊന്നും പലതും ജനങ്ങൾ അറിയുന്നില്ല അത് അറിയിക്കുവാനായി നല്ല രീതിയിൽ ഒരു ബിസിനസ് വാർത്താ ഒരു ബിസിനസ് മാധ്യമവാർത്തകൾ വരണം എന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു